പാലക്കാട് ജില്ലയിലെ സമ്പദ്വ്യവസ്ഥയ്ക്ക് മെയിനായിട്ട് പങ്കു വഹിക്കുന്നത് നെൽക്കൃഷിയാണ് ഇപ്പോൾ പണ്ട് പണ്ടത്തെ നെൽക്കൃഷിയെ സംബന്ധിച്ചെടുത്തോളം ഒരുപാട് വികസനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ പാടത്ത് ആളുകൾ കിടന്ന് നെല്ല് കൃഷി നടുന്നതിന് പകരം ഇപ്പോൾ മെഷീനോക്കെ ഉപയോഗിച്ച് നമുക്ക് നടാൻ സാധിക്കുന്നുണ്ട് അതുപോലെ യന്ത്രങ്ങളുടെ വരവോടുകൂടി കൃഷിപ്പണിയും കുറച്ചുകൂടെ അവർ സാമ്പത്തികമായിട്ട് ലാഭിപ്പിക്കുന്നുണ്ട് അതുപോലെ പിന്നെ കൊയ്യാനൊക്കെ ആളുകളുടെ ലഭ്യതക്കുറവിനെ നമ്മൾ യന്ത്രം ഒരുപാട് സഹായിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ പ്രശ്നങ്ങളെന്നു പറയുന്നത്

കൃഷിയെ നല്ല രീതിയിൽ ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ സർക്കാർ നെൽവിത്ത് കയറ്റുന്നതും കൃഷിക്കാരുടെ കയ്യിൽ നിന്നും കൃത്യ സമയത്ത് തന്നെ നെല്ല് സംഭരിക്കാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് വരുന്നുണ്ട് അതുപൊലെ സംഭരണം വൈകുന്നതോടുകൂടിയും അല്ലെങ്കിൽ അവർക്ക് സംഭരിച്ചതിൻ്റെ പൈസ തിരിച്ചു കിട്ടാത്തത് കൊണ്ടുമൊക്കെ കിട്ടാൻ വൈകുന്നതുകൊണ്ടൊക്കെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നതാണ് അതുപോലെ പിന്നെ നെല്ലിൻ്റെ വിലയിലൊക്കെ നല്ല കുറവുള്ളതുകൊണ്ട് അവർക്കതിൻ്റേയും സാമ്പത്തികമായിട്ട് നല്ലതുപോലെ ബാധിക്കുകയാണ് അപ്പോൾ കൃഷി ഇറക്കാനെക്കെ നല്ലതുപോലെ പൈസ ആവശ്യമായി വരികയാണ് പിന്നേ മഴയും വെയിലുമൊക്കെ അവർ കൃഷിയെ ബാധിക്കയാണ് ഇപ്പോൾ ചൂട് കൂടുന്നതുകൊണ്ട് കൃഷിയൊക്കെ ഉണങ്ങി പോകുന്നു അതുപോലെ മഴ കൂടുമ്പോൾ കൃഷിയൊക്കെ നശിച്ചു പോകും മഴയത്ത് നശിച്ചു പോകുന്നു സാഹചര്യം ഉണ്ടാകുകയാണ്